നമ്മള് ഈ പറമ്പില് നടുന്ന ഓരോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതിന്റെ എവിടെന്നേലുമൊക്കെ കിട്ടുന്ന ഇപ്പം എതേലും നമ്മള് കടേന്ന് വാങ്ങുന്നു അങ്ങനെ ഏതെങ്കിലും ഒക്കെ സ്ഥലത്ത് നിന്ന് കുടുംബസ്ത്രീയിൽ നിന്നോ അങ്ങനെയൊക്കെ വിത്തുകളൊക്കെ കിട്ടില്ലേ അത് കൊണ്ടുവന്ന് നമ്മള് മുളപ്പിച്ച് അതിന്റെ ഇതൊക്ക ഇതാക്കി പരിപാലിച്ച് അത് നമ്മള് കൊണ്ടുപോയി നട്ട് അതിനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചെറിയ എന്തേലുമൊക്കെ വളമൊക്കെ ഇട്ട് അതിനെ പരിപാലിച്ച് കൊണ്ടുവരുന്ന ഒക്കെയാണ് പിന്നെയീ മൃഗങ്ങള് പല രീതിയ്ക്ക് നമ്മുടെ തോട്ടങ്ങളില് വന്നിട്ട് ഓരോ സാധനങ്ങള് കളയാന് ശ്രമിക്കും അപ്പം നമ്മള് ചെറിയ രീതിയ്ക്ക് കറണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിക്കും മറ്റേ പെന്സിംഗ് പോലത്തെ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വരച്ച് ച്ചെ വലിച്ച് സെറ്റാക്കും പിന്നെന്ന് പറയുമ്പം ഈ വേനല്ക്കാലത്ത് നമ്മള് ചെറിയ ചെറിയ കൃഷികളുണ്ടാവില്ലേ ഈ കണ്ടത്തില് മറ്റേ ചേന അങ്ങനെയുള്ള സാനങ്ങള് അതിൻ്റെ ചോട്ടിൽ കൂടെയൊക്കെ മറ്റേ പയർ അങ്ങനെയുള്ള സാനങ്ങളൊക്കെ ഇട്ട് കൃഷി ചെയ്യും പിന്നെ ഇത് മഴ കാലം എന്നെല്ലാം പറയുമ്പോൾ ഈ നെല്ല് അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവില്ലെ ഓരോ സമയത്ത് ഓരോ രീതിയില് ഉള്ള കൃഷികളൊക്കെ ഇല്ലേ അതൊക്കെ ആയിരിക്കും നമ്മള് മെയിന് ആയിട്ടും നോക്കി നടത്തുന്നത് അത്കൊണ്ട് ഇങ്ങനെ നമ്മള് ഈ പറമ്പുകളിൽ ഓരോന്നൊക്കെ ഉണ്ടാവുന്നത്